നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം പല നൃത്ത രൂപങ്ങളുണ്ട് ഇന്ത്യയിലെ ഒരുപാട് നൃത്ത രൂപങ്ങൾ പ്രശസ്തമാണ് ഇന്ത്യയിലെ നോക്കുകയാണെങ്കിൽ വടക്ക് ഭാഗം തെക്ക് ഭാഗം കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ നാല് ഭാഗമായിട്ടുണ്ട് അവിടെ നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും പല നൃത്തരൂപങ്ങളാണ് ഉള്ളത് അങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ എത്രയോ കോടികണക്കിന് ആൾക്കാര് ജാതിമത ഭേതമന്യേ പല ജീവിതം പല തരത്തിലുള്ള പല ആചാരങ്ങൾ പല വിശ്വാസങ്ങൾ പല അനുഷ്ഠാനങ്ങൾ ഉള്ള പലതരം ആളുകൾ ചേർന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ വൈവിധ്യമായ രാജ്യം അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് നൃത്ത രൂപങ്ങളുണ്ട് ഭരതനാട്ട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കഥകളി കഥക് ബിഹു അങ്ങനെ ഒരുപാട് നൃത്ത രൂപങ്ങളുണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ നൃത്ത രൂപങ്ങളുണ്ട് സംസ്ഥാന നൃത്ത രൂപങ്ങളുണ്ട് അങ്ങനെ പ്രശസ്തരായ നർത്തകരുടെ പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പേർ സിനിമ രംഗത്ത് തന്നെ ഒരുപാട് പേർ നല്ല പ്രശസ്തരായ നർത്തകൻ നർത്തകന്മാരുണ്ട് നർത്തകികളുണ്ട് നമുക്ക് ഏറ്റവും കുറച്ച് ഇഷ്ടപ്പെട്ട ആളെ നോക്കുകയാണെങ്കിൽ പ്രഭുദേവ അദ്ദേഹം ഒരു നടനാണ് അതുപോലെതന്നെ ഒരു നർത്തകനാണ് അതേപോലെ കലാമണ്ഡലം കൃഷ്ണൻ മേനോൻ അങ്ങനെ അങ്ങനെ പ്രശസ്തരായ ഒരുപാട് കഥകളിൽ പ്രമുഖരായ ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ് നമ്മുടെ കേരളം അതുപോലെ രുഗ്മിണി ദേവി ഇവരൊക്കെ അങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട് നൃത്തത്തിൽ ഒരുപാട് നൈപുണ്യം ഒരുപാട് കഴിവുള്ള കുറേ കലാകാരന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മറ്റു സംസ്ഥാങ്ങളിലും ഒരുപാട് കലാകാരന്മാർ ഉണ്ട്